കുട്ടിക്കാലത്ത് ടൂറിന് പോവുന്ന സമയത്ത് നമ്മൾ പോയ സ്ഥലങ്ങളെന്ന് വച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ജില്ലൻ്റെ അടുത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയും അതേ പോലെ തന്നെ വയനാട് ജില്ലയും വയനാട് ജില്ലയിൽ പല ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് വച്ച് കഴിഞ്ഞാൽ പൂക്കോട് തടാകമാണ് പിന്നെ മറ്റൊന്ന് വാനാസുര സാഗർ ഡാം എന്നു പറയും ബാനാസുര സാഗർ ഡാം എന്നു വച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കാണാനും നല്ല ഭംഗിയാണ് അവിടെ ഒരു ഡാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ എല്ലാം നല്ല നല്ല സ്ഥലങ്ങളാണ് പിന്നെ അവിടെ ഊഞ്ഞാലുണ്ട് നമുക്ക് ദൂരത്തോളം ഊഞ്ഞാലാടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പൂക്കോട് തടാകത്തിൽ സ്വിമ്മിംഗ് ഉണ്ട് സിമ്മിങ് അല്ല ബോട്ട് റൈസ് ബോട്ട് ബോട്ട് പോകുന്നതും പിന്നെ അതുപോലെ തന്നെ ആനൻ്റെ മേലെ സവാരി ചെയ്യുന്നത് പിന്നെ നല്ല സ്ഥലമാണ് കാണാനെല്ലാം നല്ല കണ്ണിനെല്ലാം നല്ലൊരു കുളിർമ തോന്നുന്നൊരു സ്ഥലമാണ് പൂക്കോട് തടാകം പിന്നെ നമ്മൾ കണ്ടൊരു ചുരാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അത് ഈ കോഴിക്കോടിനെയും അതുപോലെ തന്നെ വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ആണ് ആ ചുരം കയറുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഏറ്റവും മുകളിലെത്തുമ്പോൾ ഈ ബസ്സുകളും കാറുകളും വണ്ടികളെല്ലാം നമ്മൾ ഒരു തീപ്പെട്ടി അടുക്കി വച്ചപോലെയാണ് തോന്നണത് അതുപോലെ തന്നെ നമ്മൾ ഈ വയനാട്ടിലുള്ള മറ്റൊരു സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലമാണ് ലേക്കടി വ്യൂ പോയിൻ്റ് എന്ന് പറയും അതും ഇതേ പോലെ തന്നെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്